ഹലോ ട്രാവൽ ഏജൻസി അല്ലെ ഞാൻ എറണാകുളത്തിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് ഒരു വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ട് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫാമിലി ട്രിപ്പ് ആണ് അപ്പോൾ മൊത്തം ഒരു ഒമ്പത് പേര് അടങ്ങുന്ന ഒരു പാക്കേജ് ആയിട്ടാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്

മണ്ടേ ആയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്

ആ ഞങ്ങൾക്ക് പിന്നെ ഒരു വണ്ടിയും പിന്നെ ഞങ്ങൾക്ക് ഒരു സ്റ്റേ ചെയ്യാനൊരു റിസോർട്ടോ അല്ലെങ്കിൽ ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ചിലപ്പോൾ ട്രെയിനിന് ആയിരിക്കും ആ ആ ആ അപ്പോൾ

ആ അതും കൂടി അറിയണമായിരുന്നു ഇപ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയണമായിരുന്നു വായനാട്ടിലെ അവസ്ഥ എന്താണെന്ന്

ആ മതി നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പോവാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം എവിടെ ഒക്കെയാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വിളിച്ച് ഈ നമ്പറിലേക്ക് വിളിച്ച് ഒന്ന് അറിയിച്ചാൽ മതി പിന്നെ കിലോമീറ്ററിന് എത്രയാണ് ഇതിന് റേറ്റ് വരുന്നതെന്നോ അങ്ങനെ ആ ആ ആ ആയിക്കോട്ടെ ആ ശരി താങ്ക് യു ആ ഞങ്ങൾ വിളിച്ച് അറിയിക്കാം പിന്നെ നിങ്ങൾ ഇപ്പോൾ എവിടെ ഒക്കെയാണ് സ്ഥലം ഉള്ളതെന്ന് ഞങ്ങളെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഉപകാരം ആയിരുന്നു ആ ഓക്കേ താങ്ക് യു